ആ പറയൂ എന്താണ് ഓക്കെ നിങ്ങൾ എങ്ങനത്തെ സ്ഥലം ആണ് പ്രിഫറ് ചെയ്യുന്നത് ആ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഒരു വയനാട് ഇടുക്കി രണ്ട് സ്ഥലത്ത് ആയാലും ഓക്കെ ആണ്

ആ ഇച്ചിരി കൂടി എനിക്ക് ഇഷ്ടം ഫുൾ തോന്നിയത് ഇവിടെയൊക്കെയാണ് വയനാട് ഇടുക്കി അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ് അതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര വീട് ഉണ്ട് അന്നത്തെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ ഓക്കെ എത്ര പേര് ഉണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മീൻസ് എത്ര റൂമ് വേണ്ടി വരും ഒരു മൂന്ന് റൂമ് ബുക്ക് ചെയ്യില്ലേ നിങ്ങളുടെ റൂമിൽ കൂടി പോയാൽ മാക്സിമം നാല് പേരെ ഉണ്ടാകുള്ളൂ എന്തായാലും ആ ആ ആ ഫെസിലിറ്റീസ് ഒക്കെ നോക്കി എല്ലാ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടേ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യുള്ളൂ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ടിംഗിൽ നിൽക്കുവാണോ അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് മാത്രം മതിയോ ആ ഇപ്പോൾ ബാക്ക് ആ ബസ്സ് വേണോ അതോ ട്രാവലറോ ട്രാവലറ് മതി ആയിരിക്കില്ലേ

പക്ഷെ ബസ്സ് ആകുമ്പോൾ നാൽപ്പത്തി അഞ്ച് പേര് ആണ് മിനിമം ബസ്സ് എന്താ വരുന്നെ അത് നോക്കിയിട്ട് ഞാൻ ബസ്സിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം പിന്നെ ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ബസ്സിന് കൂടി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കേറുകയുള്ളു ആ ഇവിടെ വന്നിട്ടുള്ള സ്റ്റേയ്ക്ക് ഓരോ ഹോട്ടലിന് അനുസരിച്ച് നിങ്ങൾ തന്ന ആ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഞങ്ങൾ നോക്കാം അതിന് അനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ആയിരിക്കും ആ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് വേണമെന്ന് റെക്കമൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കാം ആ അത്ര വലിയ ഫീസ് ഒന്നും ഉണ്ടാകുന്നില്ല അത് ഞാൻ നിങ്ങളോട് അല്ലേ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര ദിവസം വേണം ആ മൂന്ന് ദിവസം കൊണ്ട് എല്ലാം എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ച് ദിവസം മാക്സിമം വേണ്ടി വരും ഫൈവ് ഡെയ്സ് എന്തായാലും വേണ്ടി വരും

ആ ആ അപ്പോൾ ഓക്കെ അഞ്ച് ദിവസത്തിന് ഉള്ളിൽ നമുക്ക് സെറ്റ് ആക്കാം മീൻസ് മൂടൽ മഞ്ഞ് വന്നിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്ത് പോകാൻ പറ്റില്ല അതാണ് ഞാൻ ഒരു അഞ്ച് ദിവസം പറഞ്ഞത് ആ ഫുഡ്ഡ് ഒക്കെ ഹോ അവിടെ ഹോട്ടൽ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽനിന്ന് പ്രൊവൈഡ് ചെയ്യും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആയിരിക്കും ആ സ്റ്റേയ്ക്ക് ഉള്ള പ്രൈസ് പറയുക ആ അത് നിങ്ങൾ ഒരു എമ എത്ര പേർക്ക് വെജിറ്റേറിയൻ വേണം എത്ര പേർക്ക് നോൺവെജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞ് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഒരു റേഞ്ച് പറയാമോ ഫീയുടെ എത്ര വരും ഏകദേശം ഇല്ല അതിനും കൂടുതലായിരിക്കും കാരണം ഏജ് പ്രയോറിറ്റി ആൾക്കാരും പിന്നെ പിള്ളേർ ഒക്കെ ഉള്ളത് അല്ലേ അപ്പം അതിന് അനുസരിച്ചുള്ള ഫെസിലിറ്റീസും ഒക്കെ നോക്കുമ്പോൾ ഒരു ഇത്തിരിയും കൂടി കൂടും ഒരു ഫോർ തൗസൻഡ് ഒക്കെ എന്തായാലും വരും ആ ഓക്കെ

ആ അത് ഒക്കെ തുച്ഛമാണ് അത് ഒക്കെ ഒന്ന് കണ്ടോളൂ ഡേറ്റ് എങ്ങനെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അല്ല നിങ്ങൾക്ക് ഈ മാസം വേണോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം മുതൽ ഈ ഒരു മാസം ഒരു പതിനഞ്ച് തൊട്ട് ഓക്കെ ആണോ പതിനഞ്ച് തൊട്ട് ഓക്കെ അപ്പോൾ

അതൊക്കെ ഞങ്ങളവിടുന്ന് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നത് ആയിരിക്കും അതൊക്കെ നോക്കിയിട്ട് ആണ് ഞങ്ങൾ ഹോട്ടല് ഫിക്സ് ചെയ്യുള്ളൂ എ അടുത്ത് അടുത്ത് ആകുമ്പോൾ പിള്ളേർ ഉള്ള ആ ആ മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം എല്ലാം റൂമ് അടുത്ത് അടുത്ത് ഉള്ളത് നോക്കി സെലക്ട് ചെയ്ത് നിങ്ങളടുത്ത് അറിയിക്കാം ഓക്കെ അതൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ നാളെ ഒരു ഉച്ച ആകുമ്പോൾ വിളിക്കാമോ അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് തരാം ഞാൻ ആ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാട്ട്സ്ആപ്പും ചെയ്യാം ഇത് തന്നെ അല്ലേ നിങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പർ

ഓക്കെ ശരി ബൈ